ഇന്ത്യൻ ആരോഗ്യസംരക്ഷണ സംവിധാനം എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ ഈ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫെസിലിറ്റി അവൈലബിൽ ആയിട്ടുള്ള ഒരു ഘട്ടം തന്നെയാണ് നടന്നോണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ മരണം മരണത്തിൻ്റെ കാരണം തന്നെ മരുന്നുകളുടെ അഭാവം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആവാത്തൊരവസ്ഥ അല്ലെങ്കിൽ കിഡ്നി രോഗ ബാധിതർക്ക് ഡയാലിസിസ് ചെയ്യാതെയുള്ള മരണം അതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു ഘട്ടം നമുക്ക് ഇന്ത്യയിൽ കഴിഞ്ഞു പോയിട്ടില്ല എങ്കിൽ പോലും ഇപ്പഴും ഇല്ല എന്നല്ല എന്നാലും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇന്ന് ഏതൊരു സ്ഥലത്ത് നോക്കിയാലും ഡയാലിസിസ് സെൻ്റർസ് ഒരുപാട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ആണെങ്കിലും എമേർ എമർജൻസി ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് സേവനങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നൽകുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു അപകടം നടന്നാൽ പെട്ടെന്ന് തന്നെ ആബുലൻസ് എത്തിക്കാനും അതിന് അതിൽ കൊണ്ടുപോകാനും പെട്ടെന്ന് ട്രീറ്റ്മെൻ്റ് നൽകാനും ഒക്കെ ഉള്ള ഒരവസരം എല്ലാ ഹോസ്പിറ്റലിലും ഇപ്പോൾ സർക്കാർ നൽകുന്നുണ്ട് അതുപോലെ വയനാട്ടിൽ ഒക്കെ ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ആയിരുന്നു എങ്കിൽ എന്നാൽ ഇന്ന് വയനാട്ടിലും ഒരു മെഡിക്കൽ കോളേജ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കോഴിക്കോട് അല്ലെങ്കിൽ എറണാകുളത്ത് അവിടെ പുറത്ത് പുറമെ ഉള്ള ജില്ലകളിലേക്ക് എത്തിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ അതും മാനന്താവാടി ജില്ല മെഡിക്കൽ കോളജിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് പ്രധാന വെല്ലുവിളി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കണ്ടത് ഇപ്പോൾ ഒരു പനിയാണെങ്കിൽ പോലും ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നി വരുന്നുണ്ട്